എൻ്റെ നാട്ടിൽ പൊതുവേ എല്ലാവരും കളിക്കാൻ ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളവരാണ് കുറച്ച് ആൾക്കാരൊക്കെയാണ് എല്ലാവർക്കും അത്യാവശ്യം ഇൻട്രസ്റ്റ് ഒക്കെ എല്ലാവരും വൈകുന്നേരത്ത് ക്ലാസ് കഴിഞ്ഞ് വന്നാലോ ഇല്ലെങ്കിൽ വർക്ക് കഴിഞ്ഞ് വന്നാലക്കെ ഒരു കളിക്കാൻ വേണ്ടി ഒരു ടൈം കണ്ടെത്തുന്ന ജനങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ ഇപ്പോൾ ഇവർ വരും നമ്മൾ കളിക്കാനൊക്കെ പോവാറുണ്ട് കൂടുതലും ഫ്രണ്ട്സ് ആണ് കൂടെ കളിക്കുന്ന തൊട്ടടുത്ത വീട്ടിലുള്ള കുട്ടികളുണ്ടാവും പിന്നെ കുറച്ച് അപ്പുറത്ത് ക്ലബിലുള്ള ഏട്ടന്മാരുണ്ടാവും ഇവരൊക്കെ കൂടി കളിക്കാനാണ് പോവാറ് ഒരഞ്ച് മണിയാകുമ്പോൾ എല്ലാവരും വരും എല്ലാവരും വിളിച്ച് കൂട്ടും എന്നിട്ട് ക്ലബ്ബിൽ നിന്ന് എല്ലാവരും കൂടി കളിക്കാൻ പോകും കളിക്കാൻ പോകാൻ തന്നെ നമ്മുടെ അടുത്തുതന്നെയാണ് ക്ലബ്ബിന് ഗ്രൗണ്ടൊക്കെ ഉള്ളത് വലിയൊരു പറമ്പാണ് പറമ്പിൽപ്പോയി കളിക്കും ചുറ്റും കുറേ പേരുണ്ടാവും കുറേ പേര് കളി കാണുന്നവരൂണ്ടാവും കളിക്കുന്നവരൂണ്ടാവും വെല്ലുവിളികളും അതേപോലെ തമാശകളും അങ്ങനെ നിറഞ്ഞ നല്ല നല്ല കുറച്ച് സമയമാണ് ഈ കളിക്കുന്നതെന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് കളിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും നമ്മൾ കളിക്കും കളിക്കാനുള്ള നല്ല സ്ഥലമാണ് നമുക്കവിടെ ഒരു ആറര ഏഴുമണിവരെ ഇരുട്ടാവുന്നതുവരെ നമ്മളവിടുന്ന് കളിക്കും കളിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് പോവാറുള്ളത് നമ്മുടെ ഒരു ഒരു സ്പെഷ്യൽ സ്പെയ്സെന്നൊക്കെ പറയുന്നതാണ് നമ്മുടെ കളിസ്ഥലവും കളിക്കുന്ന കൂട്ടുകാരൊക്കെയെന്ന് പറയുന്നത്